ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക വിനോദം എന്ന് പറയുന്നത് ക്രിക്കറ്റും ഫുട്ബോളുമൊക്കെ ആണ് ഇപ്പോൾ എല്ലാവരും ഈ ചെറുപ്പം തൊട്ടേ എല്ലാ കുട്ടികൾക്കും ഒരു ക്രൈസാണ് ഇപ്പോൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ എല്ലാവർക്കും വളരെ ഇഷ്ട്ടമാണ് അതുപോലെ എല്ലാ കബഡി പോലുള്ള ഗെയിംസൊക്കെ എല്ലാവർക്കും വളരെ എൻ്റർടൈൻ തരുന്ന ഒരു ഗെയിമാണ് അതിപ്പോൾ ക്രിക്കറ്റാണെങ്കിൽ പതിനൊന്ന് പേര് അതാണ് ടീമിൽ കുറേ പേര് കളിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു എനർജിയും അതേപോലെ ഒരു എക്സ്പീരിയൻസും ഇതൊക്കെ വളരെ ഇതാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് വളരെ ഇഷ്ട്ടപ്പെട്ട ഒരു ഗെയിമാണ് അതേപോലെ ഫുട്ബോളാണെങ്കിലും പതിനൊന്ന് പേര് ഗ്രൗണ്ടില് നമുക്ക് ഫിസിക്കലായിട്ടും അതേപോലെ മെൻ്റലിയൊക്കെ നല്ല എനർജി തരുന്ന ഗെയിമാണ് ഫുട്ബോള് ക്രിക്കറ്റാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറ് വേൾഡ് കപ്പ് ഉയർത്തിയ ഒരാള് ആ വ്യക്തിയാണ് മഹത് വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൾക്കറൊക്കെ അതേപോലെ ധോണി ഇപ്പോൾ ഫുട്ബോളാണെങ്കിൽ സുനിൽ ഛേത്രി പോലുള്ള നല്ല നല്ല പ്രതിഭകളും പ്ലയേഴ്സൊക്കെ നമ്മുടെ ഇടയിലുണ്ട് അതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ കായിക വിനോദത്തെ വളർത്തി കൊണ്ട് വന്ന പ്രതിഭകളാണ് ഇനിയും പ്രതിഭകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നമ്മുടെ നാടിന്റേയും രാജ്യത്തിൻ്റെ ഒക്കെ പ്രൗഡ് മൊമന്റാണ് അതൊക്കെ